ചരിത്രപരമായി പേരുകേട്ട ഒട്ടേറെ സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ട് ഉദാഹരണത്തിന് കനോലി പ്ലോട്ട് പൂക്കോട്ടൂർ യുദ്ധസ്മാരകം തിരൂർ വാഗൺ ട്രാജഡി ഹാൾ തുഞ്ചൻ പറമ്പ് മലപ്പുറം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി യുടെ ജന്മസ്ഥലം കൊണ്ടോട്ടി മോയിൻ കുട്ടി വൈദ്യർ സ്മാരകം നിലമ്പൂർ ടീക്ക് മ്യൂസിയം നിലമ്പൂർ ബംഗ്ലാവ് കുന്ന് കരിവാര കുണ്ടിൽ കേരളകുണ്ട് എസ്റ്റേറ്റ് അങ്ങാടിപ്പുറം തിരുമാന്ധാ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം മിനി ഊട്ടി ഇത്തരം ഒരുപാട് സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിൽ ചരിത്രപരമായി പ്രസിദ്ധി ആർജ്ജിച്ചതാണ് എന്ന സ്ഥലങ്ങളാണ് ഈ ബ്രിട്ടീഷ് കാരുടെ കാലത്ത്

നട്ട് വളർത്തിയ തേക്കുകളുടെ തേക്കുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കനോലി പ്ലോട്ട് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്താണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധി ആർജ്ജിച്ചത് ആണ് പൂക്കോട്ടൂർ ഇവിടെ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നു അതുപോലെ തിരൂർ വാഗൺ ട്രാജഡി ഹാൾ ഇതും ഗുഡ്സ് വാഗണിൽ ആളുകളെ കയറ്റി കോയമ്പത്തൂരിലേക്കുള്ള വഴി പോത്തന്നൂർ തുറന്ന് നോക്കുമ്പോൾ ഒട്ടേറെ ആളുകൾ അതിൽ മരണപ്പെട്ടിരുന്നു ഇവരുടെ സ്മാരകത്തിന് വേണ്ടിയിട്ടാണ് വാഗൺ ട്രാജഡി ഹാൾ തിരൂർ സ്ഥാപിതമായിട്ടുള്ളത് തുഞ്ചൻപറമ്പ് അതുപോലെ മറ്റൊരു പേരുകേട്ട സ്ഥലമാണ് മലയാള സർവ്വകലാശാലയുടെ ആസ്ഥാനം ആണിവിടെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കലാപത്തിൽ മലബാർ കലാപത്തിൽ പേരുകേട്ട ഒരാളാണ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇദ്ദേഹത്തിൻ്റെ മലപ്പുറം കോട്ടക്കുന്നിലാണ് ഈ ഈ ഈ സ്ഥലം ഉള്ളത് കൊണ്ടോട്ടിയാണ് മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിൽ ഇതുപോലെ ഒരു തേക്ക് മ്യൂസിയം സ്ഥാപിതമായിട്ടുണ്ട് നിലബൂർ ബംഗ്ലാവ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിതമായിട്ടുള്ള ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന കുന്ന് ബംഗ്ലാവ് കുന്നിലാണ് കേരളാമുണ്ട എസ്റ്റേറ്റ് ഇത് കരിവാര കുണ്ടിലാണ് സ്ഥിതിചെയ്യുന്നത് അങ്ങാടിപ്പുറം കാടാമ്പുഴ എന്നീ സ്ഥങ്ങളിൽ ക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധി ആർജ്ജിച്ചതാണ് പ്രാദേശികമായി അടുത്ത കാലത്തായി സ്ഥാപിതമായിട്ടുള്ളതാണ് മിനി ഊട്ടി ഇവിടെ ജനങ്ങൾ നിത്യവും ആയിരക്കണക്കിനാളുകൾ സന്ദർശിക്കുന്നുണ്ട്